പിന്നേ വാൽനക്ഷത്രത്തെ ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട് ചെറുപ്പത്തിൽ ഒരു വട്ടം കണ്ടിട്ടുണ്ട് പിന്ന ഇടയ്ക്ക് ഒരു കോമെറ്റ് പോയെന്ന് ഇങ്ങനെ ഞാൻ നമ്മളെ ഇവിടെ അല്ലായിരുന്നു പോർച്ചുഗൽ ആയിരുന്നു അവിടെ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഒരു നീല കളറിലെ ഒരു വാൽ നക്ഷത്രം പോലെ വാൽ നക്ഷത്രം ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് അതിൻ്റെ പുറകിലുള്ള കുറേ സയൻസ് അറിയാൻ തോന്നും അങ്ങനെ നമ്മൾ കുറേ അന്വേഷിക്കും ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ ജെസ്റ്റ് സെർച്ച് എങ്കിലും ചെയ്യും എന്തു കൊണ്ട് ഇത് വന്നു എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ നമ്മുടെ ഈ സൂര്യന് ചുറ്റും നടക്കുന്ന ഏതോ ഒരു കോസ്മെറ്റ് അല്ല ഏതോ ഒരു കല്ല് പോലത്ത സംഭവങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് പ്രവേശിക്കുമ്പം അവിടത്തെ ഫ്രിക്ഷൻ മൂലം ഇതിൻ്റെ അവിടത്തെ എയറിൻ്റെ ഫ്രിക്ഷൻ മൂലം അത് ഉരഞ്ഞ് കത്തി പോകുന്നതാണ് അത് കത്തുമ്പോൾ ഫ്രിക്ഷൻ മൂലം ഏത് സബ്സ്റ്റൻസ് കൊണ്ടാണോ ആ കല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗ്യാസാണോ അവിടെ പ്രെസൻ്റ് ആയിട്ടുള്ളത് അത് അനുസരിച്ച് അതിൻ്റെ കളറിന് വ്യത്യാസം വരും അങ്ങനെയാണ് നമുക്ക് അത് അതിൻ്റെ വാൽ പോല തോന്നും അത് ഭയങ്കര സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ വാൽ പോല നമുക്ക് തോന്നും അങ്ങനെയാണ് വാൽനക്ഷത്രം ഉണ്ടാവുന്നത് എങ്കിലും ഇതിൻ്റെ സയൻസ് ഒക്കെ എത്ര പറഞ്ഞാലും നമ്മൾ അതിനെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുകയും ഭയങ്കര ഒരു നമ്മൾ ഒരു കുട്ടിയായി അതിനെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കാൻ തോന്നും പക്ഷെ അത് പെട്ടന്ന് പോവും ആ സ്പോട്ടിൽ നമുക്ക് അത് നേരത്തെ എപ്പോൾ വരും എന്നൊക്കെ മാർഗം ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അറിഞ്ഞു നോക്കി നിൽക്കും പെട്ടന്ന് കണ്ടു പോകും ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ് പിന്നെ വാൽനക്ഷത്രത്തെ നോക്കി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കും എന്നൊരു വിശ്വാസമൊക്കെ വിശ്വാസം അല്ല ഒരു പിള്ളേർ പറയുന്ന ഒരു തമാശ പോലുണ്ട് എങ്കിലും അതൊക്കെ ചെയ്യാനൊക്കെ രസമാണ് അങ്ങനെ എല്ലാം വാൽനക്ഷത്രത്തെ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും നല്ലതാണ് വാൽനക്ഷത്രമൊക്കെ